ആ എറണാകുളത്തെ കമ്പനിയിൽ ആയിരുന്ന ഹരിദാസൻ എന്ന് പറയുന്ന അതെ ആ ആ ആ ഞാൻ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ നമ്മള് കണക്ക് അനുസരിച്ചിട്ട് നമുക്ക് മുഴുവൻ തുക ആയി കിട്ടിയത് പത്ത് ലക്ഷം ആണ് ഇപ്പോൾ കിട്ടിയിരുന്നു ആ അതെ പത്ത് ലക്ഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മുടെ വർഷത്തില് മാത്രം ആയിട്ടുള്ള തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം പിന്നെ ചായം അത് എല്ലാം കൂടിയിട്ട് ബാക്കി മൂന്ന് ലക്ഷം പിന്നെ വരവും ചിലവും എല്ലാം അനുസരിച്ചിട്ട് ബാക്കി വരുന്ന തുക അതായത് മുഴുവൻ ആയിട്ട് പത്ത് ലക്ഷമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ആ ഞാൻ അത് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ആണ് അതില് ഉൾപ്പെടുത്തേണ്ടത് എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു ഇതേ പോലത്തന്നെ ആണോ അതോ ആ നിങ്ങൾക്ക് ഇതേ പോലെ തന്നെ ആണോ വേണ്ടത് അതോ ആ ആ ആ ആ നിങ്ങൾക്ക് നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ചിട്ട് ഇത്ര തുകയിൽ നമുക്ക് അത് നിർത്തണം പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു നിബന്ധന ഉണ്ടോ

ആ അപ്പോൾ ഒന്നരക്കോടിയില് താഴെ രീതിയിൽ നമ്മ നമ്മളത് തയ്യാറാക്കണം ആ ആ ശരി ശരി ആ ആ ഉണ്ട് ഉണ്ട് ആ അത് ഇപ്പോൾ ഞാൻ ബന്ധപ്പെടാം നിങ്ങളെ നിങ്ങളെ ആ ശരി ശരി എന്നാൽ അങ്ങനെ ചെയ്യ് ആ ശരി